കായിക രംഗത്തെ വിജയവും പരാജയവും സാധാരണ നടന്നു വരുന്ന കാര്യമാണ് പരാജയമുണ്ടായാലാണ് നമുക്ക് വിജയമുണ്ടാവുള്ളൂ ഇവിടെ ഒരുപാട് കുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികൾ ഉണ്ട് അവർക്ക് ഇന്ന് പ്രോത്സാഹനം പലപ്പോഴും കിട്ടാറില്ല പരാജയം മിക്കവാറും അവർ അതുകൊണ്ടാണ് കൂടുതലും പരാജയപ്പെട്ട് കൊണ്ടിരിക്കുന്നത് നമ്മൾ വലിയ ഇത് കുട്ടികൾ നല്ല രീതിയിലൊക്കെ കളിക്കുമ്പോൾ ആ കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് തക്ക വണ്ണം ആരും മുന്നോട്ട് വരാറില്ല ഇപ്പം പിന്നേയും കുറച്ചൊക്കെ സഹായം കുട്ടികൾക്ക് കിട്ടാറുണ്ട് പക്ഷേ അന്ന് മുന്നത്തെ കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു വിധം കുട്ടികൾ മെച്ചപ്പെട്ട് വരുന്നുണ്ട് പിന്നെ പരാജയം ഉണ്ടാവുതോറും അവർ കൂടുതൽ ഉയർന്ന് നല്ല രീതിയിൽ കളിക്കാനുള്ള പ്രോത്സാഹനം അവർക്ക് കിട്ടുന്നുമുണ്ട്